ആഹ് കോട്ടയം എന്റെ നാട് കോട്ടയമാണ് കോട്ടയം ജില്ലയില് കുറെ ഒത്തിരി ഒത്തിരി വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ട് അതില് ഒന്നാമത് ഞാൻ പറയുന്ന എന്റെ വീട് എന്റെ ഭവനത്തിന്റെ അടുത്തായിട്ട് തന്നെ മാതൃമല അമ്പലം എന്ന് പറയുന്നൊരു മാതൃമല ഒരു അമ്പലമാണ് അതൊരു മലയുടെ മുകളിലാണ് അതിരിക്കുന്നത് അതിങ്ങനെ കുറച്ച് യാത്ര ട്രാവലെയ്ത് പോകണം നമ്മളൊരു ഹൈകിങ് എക്സ്പീരിയൻസൊക്കെ കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട്സ്മെല്ലാമായിട്ട് മിക്കപ്പോഴും അവിടെ പോവുന്നതാണ് അവിടെ ഒരു വൈബുണ്ടാക്കുന്നതാണ് നല്ല ഒരു എക്സ്പീരിയാൻസാണവിടെ അതുപോലെത്തന്നെ വേറെ അയിന്റെ അതിന്റെ ഒരു എറൌണ്ട് പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസില് അരുവിക്കുഴി വാട്ടർഫാൾസ്സുണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ നമ്മൾ പാസ് വെച്ചാണ് അവിടെ പാസുണ്ട് അവിടെ പാസ് വെച്ചാണ് നമ്മളതിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ഓരോ പാസിനും പത്തുരൂപ വെച്ചാണ് അതിന്റെ നിരക്ക് എന്ന് പറയുന്നത് അവിടെ വേനൽ കാലത്ത് അധികവും വലിയൊരു വെള്ള വെള്ള വെള്ളത്തിന്റെ ഒരു ഇത് ഉണ്ടാവില്ല പക്ഷേ മഴക്കാലം ഒരു വിന്റർ സീസൺ ഡിസ മഴ മഴക്കാലം ജനുവരി ഡിസംബർ അങ്ങനെ ആ ഒരു ആ ഒരു ഇതിൽ എത്തുമ്പോളേക്ക് അവിടെ നല്ലൊരു നല്ലൊരു കാഴ്ച്ച തന്നെയുണ്ട് നമ്മള് അവിടെ പോവുന്നൊര് എക്സ്പിരിയൻസ് മഴയെല്ലാം പെയ്ത് ഇരിക്കുമ്പോൾ ഒരു ചായയെല്ലാം കുടിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ് അതുപോലെത്തന്നെ ഒര് സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് ഇല്ലിക്കൽ കല്ല് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വാഗമൺ വാഗമണ്ണിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ഒരു നല്ലൊരു മൌണ്ടയിന്റെ ഒരു ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടാൻ സാധിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക്